ആഹ് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഒരു അഞ്ചാറു പേർക്കൊപ്പം ഹൈക്കിങ്ങിനു പോയിട്ടുണ്ട് ഒരിക്കലും ഒറ്റയ്ക്കു പോകുന്നതല്ല എല്ലാവരും കൂടി കൂട്ടിനു പോകുന്നതു തന്നെയാണ് എല്ലാവരേയും കൂട്ടി ഒരുമിച്ചു പോകുന്നതു തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് ഒറ്റയ്ക്കു പോകുന്നതിന് നല്ലതല്ല എന്നല്ല പക്ഷേ ഹൈക്കിങ്ങ് എന്നൊക്കെ പറയുന്നത് അത്യാവിശ്യം റിസ്കിങ്ങ് ആയിട്ടുള്ളൊരു ഇതുതന്നെയാണ് അപ്പം പെട്ടന്ന് നമ്മൾക്കെന്തെങ്കിലും ക്യാഷ്വാലിറ്റി വന്നാലോ അല്ലെങ്കിൽ അങ്ങനെയെന്തെങ്കിലും ആവിശ്യങ്ങൾ വന്നാൽ പോലും നമുക്കൊരു ഹെൽപ്പിനു നമ്മുടെകൂടെ ഒരാളെങ്കിലും ഒരാൾ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഒറ്റയ്ക്ക് പോകുന്നതിന് അതിൻ്റേതായ എലോൺ ഫീൽ ഒക്കെ ഉണ്ടെങ്കിൽപോലും കുറച്ചു ഫ്രണ്ട്സ് എല്ലാരുമായിട്ട് കളിച്ചു ചിരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് പോകുന്നത് അതിന് അതിൻ്റേതായ ഒരു മൂല്യവും അതിൻ്റേതായ ഒരു സന്തോഷവും എല്ലാം ഉണ്ട് ഞാൻ ഞാനിങ്ങനെ ഹൈക്കിങ്ങിനു പോയത് ഒരു കുറുമ്പാലക്കോട്ട എന്നുപറയുന്ന ഒരു സ്ഥലത്തേയ്ക്കാണ് ഞങ്ങളെല്ലാ കൂട്ടുകാരുംകൂടി ഇങ്ങനെ കയറി പോകുകയൊക്കെ ചെയ്തു അതു വളരെ മനോഹരമായിട്ടുള്ളൊരു ഇതു തന്നെയാണ് എപ്പോഴാണെങ്കിൽപോലും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർത്തു വയ്ക്കുന്നൊരു മെമ്മറീസിലൊരു കാര്യം എന്നു പറയുന്നത് എൻ്റെ കൂട്ടുകാർക്കൊപ്പം ഞാനിങ്ങനെ അവിടെ അവിടെ പോയതുതന്നെയാണ് അപ്പം അതുപോലെ ഇങ്ങനെ പോകുന്നതുകൊണ്ടൊരു ഗുണം എന്നു പറയുന്നത് നമ്മൾക്ക് യാത്രചെയ്യാൻ ഒരുപാട് അവസരം കിട്ടുന്നു അതുപോലെന്നെ നമുക്ക് നമ്മുടെ കൂട്ടുക്കാർക്കൊപ്പം സമയം സ്പെന്റ് ചെയ്യാൻ ഒരുപാട് സമയം കിട്ടുന്നു അതുപോലെത്തന്നെ കുറേ ഓർമ്മകളും അതിലുപരി കുറേ സ്നേഹവും ബന്ധവും എല്ലാം നമുക്ക് ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടുത്തന്നെ ഞാൻ എപ്പോഴും എല്ലാവർക്കും ചൂസ് ചെയ്യുക കൂട്ടുകാർക്കും ഒരു സംഘം കൂട്ടുകാർക്കൊപ്പം ഒരു സ്ഥലത്ത് ഹൈക്കിങ്ങിനെന്നല്ല ഏത് സ്ഥലത്തേയ്ക്കാണെങ്കിലും അതുപോലെ പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കാരണം നമുക്ക് എന്തെങ്കിലുമൊരു സ്ട്രെസ്സിൽ ഇരിക്കുകയാണെങ്കിൽ അല്ല നമ്മൾക്ക് എന്തെങ്കിലും ഒരിതിലിരിക്കുകയാണെങ്കിൽ നമ്മളെ ഒന്ന് ഓക്കെയാക്കാൻ നമുക്കൊന്ന് ഓക്കെയായിരിക്കാൻ ഈ ഹൈക്കിങ്ങ് ഈ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒന്നു പുറത്തേയ്ക്ക് അല്ലെങ്കിൽ ഈ ഹൈക്കിങ്ങോ അങ്ങനെയെന്തെങ്കിലുംകൊണ്ട് തീർച്ചയായിട്ടും സാധിക്കും അതുകൊണ്ട് എപ്പോഴും നല്ലത് സംഘത്തോടെ സംഘത്തോടെ ഹൈക്കിങ്ങിനോ അല്ലെങ്കിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പുറത്തു പോകുക എന്നതു തന്നെയാണ്